ഹലോ ഹലോ എടാ ആൽബിനെ നീ കളി കണ്ടായിരുന്നുവോ എടാ ഫൈനൽ അർജൻ്റീന അടിച്ചു അർജൻ്റീന കപ്പടിച്ചു പിന്നെയല്ലാതെ എന്താണ് ഏതായിരുന്നുവല്ലേ കളി ഫ്രാൻസ് ഞാനോർത്തു ആദ്യത്തെ രണ്ട് ആദ്യത്തെ ഫസ്റ്റ് ഹാഫില് കളി രണ്ട് ഗോളിന് ലീഡ് എടുത്തപ്പോള് തന്നെ എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു പിന്നെയല്ലേ കം ബാക്ക് വന്നു കം ബാക്ക് വന്നു എംബാപ്പെ വന്ന് ഞെട്ടിപ്പിച്ചുക്കളഞ്ഞില്ലേ ഉയ്യോ സൈലൻറ്റായിപ്പോയി ഞാനാണെങ്കില് കാഞ്ചാറില് കാഞ്ചാറില് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ബിഗ് സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ആ സമനില ഗോള് വന്നപ്പോള് തീർന്നുവെന്നാണ് ഓർത്തത് മൂന്ന് ലാസ്റ്റ് എമിലിയാനോ മാർറ്റിനസൻ്റെ ഒരു സേവ് ഹോ അതില്ലായിരുന്നുവെങ്കിൽ മെസ്സി പിന്നെയും ആ ഒരു ഇതിലേക്ക് പോയേനെ മ്മ് ആണ് എന്താണെങ്കിലും അസ് എന് അർജൻ്റെീന ആരാധകൻ ഭയങ്കരം സന്തോഷമുണ്ട് നീ ഏതാണ് നീ അർജൻ്റീനയല്ലേ പിന്നെയല്ല ഇനി പോർച്ചുഗൽ ഫാൻസിൻറ്റെയും ബ്രസീൽ ഫാൻസിൻ്റെയുമൊക്കെ ഇടയ്ക്ക് നമുക്കൊരു നടപ്പ് നടക്കണം പിന്നെയല്ലാതെ ഡിസേവ്ഡാണ് പക്ഷേ നമുക്കങ്ങനെ മോശം അവര് നമ്മളെ കുറ്റപ്പെടുത്തുന്നതു പോലെ നമുക്ക് കുറ്റപ്പെടുത്താന് പറ്റില്ലല്ലോടാ കാരണം നമുക്ക് ബ്രെയിനുണ്ടല്ലോ ഏ അതാണ് എന്താണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് അത് മറക്കാനാകാത്തൊരു അനുഭവമാണ് ലെവൽ സാധനം ഭയങ്കരം ഭയങ്കരമായിട്ടും ഭയങ്കരം ബ്ലെസ്ഡായിരുന്നു ആ ഒരു ഇയർ എന്നൊക്കെ പറഞ്ഞാല് അത് കണ്ടില്ലെങ്കിൽ ഏറ്റവും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും നല്ല മൊമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാല് ഞാന് പറയും ഫിഫ വേൾഡ് കപ്പ് ഡിസംബർ ആ അതുതന്നെ ഡിസംബർ പതിനെട്ട് ആ ഒരുന്നാള് ഉറപ്പായിട്ടും മറക്കാനാകാത്ത ഒരു നല്ലയൊരു മൊമെൻ്റ് മെസ്സിക്ക് വേൾഡ് കപ്പ് കിട്ടിയപ്പം ആഗ്വാറോയുടെ സന്തോഷമൊക്കെ കാണണമായിരുന്നു എമില്യാനോ മാർട്ടിനസ് അയ്യോ

സൗദി ഉയ്യോ എന്തായിരുന്നു വേർ ഈസ് മെസ്സി വേർ ഈസ് മെസ്സിയെന്നൊക്കെ ചോദിച്ചവരുടെ ചോദിച്ചവരുടെ അതിലേക്കായിരുന്നു ശോ എന്താണെങ്കിലും നമുക്ക് ആദ്യമേ അതാണ് അതാണ് അതാണ് അർജൻ്റീനയുടെ ക്വാളിറ്റിയെന്ന് പറയുന്നതും സ്കലോണി എന്ന പരിശീലകനെ നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ റീസണും ഹാ അങ്ങനെ റാങ്കിങ്ങില് നമ്മള് ഫസ്റ്റ് വന്നു രണ്ട് സ്റ്റാറിൽ നിന്നും നമ്മൾ മൂന്ന് സ്റ്റാറിലേക്കും വന്നു മെസ്സിയുടെയൊക്കെ സന്തോഷം ആ ഗോൾഡൻ ബൂട്ടു കൂടെയുണ്ടായിരുന്നുവെങ്കില് ഒരു ഗോളിനാണ് പോയത് ആ അതെ അതെ അതെ പിന്നെ ബെസ്റ്റ് പ്ലെയർ മെസ്സി അല്ലേ എല്ലാം നമുക്കാണല്ലോ മെസ്സിയെന്ന് പറയുമ്പോള് ഇപ്പോള് കമ്പ്ലീറ്റ് പ്ലെയറല്ലേ അതുമതി കമ്പ്ലീറ്റ് പ്ലെയർ ഇനിയിപ്പം ഫുട്ബോളിൽ ഒന്നും നേടാന് മെസ്സിക്കിനിയില്ല കോപ്പ അമേരിക്ക നേടി നേടി അതിനുപുറമേ ഇതാ വേൾഡ് കപ്പ് നേടി ഹ ക്ലബ്ബിനായിട്ട് ഏറ്റവും കൂടുതല് കിരീടങ്ങളുള്ള നമ്മുടെ താരം ഏറ്റവും കൂടുതൽ ബാലെന് ഡിയോര് എറ്റവും കൂടുതല് ഗോൾഡൻ ബൂട്ട് അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പ് മറക്കില്ല ഞാൻ വേറെയൊരു ലെവലായിരുന്നു ഭയങ്കരം സെറ്റപ്പായിരുന്നു അതെ അതെ അതിന്റെയൊരു വൈബ് ഹോ പക്ഷെ ഫ്രാൻസ് ലാസ്റ്റൊന്ന് പേടിപ്പിച്ചുകളഞ്ഞ് ഉയ്യോ എന്താണെങ്കിലും കൊള്ളാം ഉയ്യോ ആ ആ ഹ ഹ ഇനിയിപ്പം ക്ലബ്ബിലേക്ക് പോകണം കുറച്ച് ആഘോഷങ്ങളൊക്കെയുണ്ട് ഇനി അതെടാ എന്നാല് ഞാന് ക്ലബ്ബിലേക്ക് പോകുകയാണ് കേട്ടോ ഞാന് വന്നിട്ട് വിളിക്കാം ഓക്കേ ഡാ ശരിയെന്നാല് ഞാന് വിളിക്കാം കേട്ടോ ഇന്നടിച്ചുപൊളിക്കണം